ഹായ് ആ ഞാനെ അവിടുത്തെ ഓഫർ എന്തൊക്കെയാ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഇപ്പം പെരുന്നാളൊക്കെയല്ലേ പെരുന്നാളിന് എന്തൊക്കെയാ ഓഫർ എന്നറിയാൻ വേണ്ടിയിട്ട് ആയിരുന്നു

വിലക്കുറവാ ആ ആ അപ്പോൾ അവിടെ വാഷിംഗ് വാഷിംഗ് മെഷീനൊക്കെ എത്രയാ റേറ്റ് വരുന്നത് അമ്പത് ശതമാനം വരെ അല്ലെ ആ ആ ഓക്കെ ഓക്കെ ഫ്രിഡ്ജിനും അതേ റേറ്റ് തന്നെയാ വരുന്നത് എൺപത് അല്ലേ ആ വേറെ എന്തൊക്കെയാ അവിടെ ഇലക്ട്രോണിക്സ് അല്ലാണ്ട് വേറെ എന്തെങ്കിലൊക്കെ ഉണ്ടോ വരുന്നുണ്ടല്ലേ ആ ഓക്കെ ഓക്കെ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അവിടുന്ന് വരുന്നുണ്ട് അല്ലെ പച്ചക്കറി എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ ഈ വെജിറ്റബിൾസിന് എന്തെങ്കിലും ഓഫർ ഉണ്ടോ പത്ത് ശതമാനം ഉളളുവല്ലെ ബാക്കി ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇരുപത് മുപ്പതൊക്കെ കണ്ടായിരുന്നു അതാ ചോദിച്ചത് ആ അല്ല അവിടെ ഇതേപോലൊയൊക്കെ തന്നെ ആയിരുന്നു പറഞ്ഞത് അതുകൊണ്ട് ചോദിച്ചതാ

കൊണ്ട് വരുന്നത് ആ കെമിക്കലാണെന്ന് തോന്നുന്നു ഇതൊന്നും അടിച്ചിട്ടില്ല ആ നിങ്ങൾ ഉറപ്പാണോ നൂറ് ശതമാനം ഉറപ്പാണോ അത് ഉപയോഗിച്ചില്ല ആണോ ആ ആ അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല പച്ചക്കറിയിലും പിന്നെ അരി അരിക്കൊക്കെ എന്തെങ്കിലും ഡിസ്കൗണ്ട് വരുന്നുണ്ടോ ആ ഓക്കേ അതായത് ബിരിയാണി റൈസിനൊക്കെ ആ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ എടുക്കാൻ വേണ്ടീട്ടാ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു

ഈ സമ്മാന കൂപ്പൺ എന്ന് പറയുമ്പോൾ എന്താ ഈ ഫസ്റ്റ് സമ്മാനം എന്താ ഓൾട്ടോ കാറാ ആ ഓക്കേ ഓക്കേ അതെ ഓക്കേ ഓക്കേ അപ്പോൾ എല്ലാത്തിനും ഓഫർ ഒക്കെ ഉണ്ട് പെരുന്നാൾ വരെ അല്ലെ ആ ഓക്കേ അങ്ങനെ ആണെങ്കിൽ നാളെ ഞാൻ വന്നിട്ട് എടുക്കാം ഓരോന്നായി ഓഹ് ഓക്കേ ഓക്കേ